ഞങ്ങളുടെ പ്രദേശത്തു ആചരിക്കുന്ന പ്രധാന ഒരു ചടങ്ങു എന്നുപറയുന്നത് കാർത്തികയൊക്കെ ആകുമ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ ദീപമൊക്കെ കൊളുത്തി വളരെ മനോഹരമാക്കും ഒരുപാട് നമ്മുടെ ചട്ടി വിളക്കുകളൊക്കെ കത്തിച്ചു വളരെ ഭംഗിയാക്കും എല്ലാ വീടും ഹിന്ദുക്കളൊക്കെ എല്ലാ വീടുകളിൽ തന്നെ അത് കത്തിച്ചു വെക്കാറുണ്ട് നല്ല ഭംഗിയാണ് കാർത്തികയുടെ മാ ദിവസമാണ് അത് കത്തിച്ചു വെക്കുന്നത് അത് പോലെ തന്നെ വൃശ്ചികമാസമായി കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ശബരിമലക്ക് പോകും ആ വൃശ്ചിക മാസത്തിൽ നാൽപ്പത്തൊന്നു ദിവസം നൊയമ്പുകളൊക്കെ എടുത്ത് പുരുഷന്മാരെല്ലാം പോകും പെൺകുട്ടികളാണെങ്കിൽ പത്തു വയസ്സിൽ താഴെ ഉള്ള പെൺകുട്ടികളും അതുപോലെ തന്നെ അൻപത് വയസ്സിന് മേലെ ഉള്ള അമ്മമാരുമൊക്കെ കൃത്യമായി നൊയമ്പൊക്കെ എടുത്ത് ശബരിമലക്ക് പോകും അതൊരു തീർത്ഥാടനമായിട്ട് തന്നെ ആണ് നമ്മൾ നോക്കി കാണുന്നത് ആ അത് പോലെ തന്നെ ഇപ്പോൾ ഇവിടെ മണ്ണർക്കാട് പള്ളി ഉണ്ട് കോട്ടയം ജില്ലയിൽ മണ്ണർക്കാട് പള്ളിയിൽ സെപ്റ്റമ്പർ ഒന്ന് മുതൽ എട്ടുവരെ ഒരു നോയമ്പ് തന്നെയാണ് അതായതൊരു തീർത്ഥാടനമാണ് എട്ടുനോയമ്പു എന്ന് പറയും ആ ഒന്നുമുതൽ എട്ടു വരെ എല്ലാ വരും ക്രിസ്ത്യാനി ക്രിസ്ത്യൻസ് മാത്രമല്ല എല്ലാ സമുദായത്തിൽ പെട്ട ആളുകൾ വന്ന് നോയമ്പ് എടുത്ത് അവിടെ പ്രാ മാതാവിനോട് പ്രാർത്ഥിച്ചു തിരിച്ചു പോകാറുണ്ട് മറ്റു പല ജില്ലകളിൽ നിന്നുപോലും അവിടെ ആളുകൾ വരാറുണ്ട് ആ എട്ടു ദിവസം മത്സ്യങ്ങളും എല്ലാം ഉപേക്ഷിച്ച് പച്ചക്കറിയൊക്കെ മാത്രം കഴിച്ച് പാലും മുട്ടയുമെല്ലാം ഉപേക്ഷിച്ചാണ് അവർ ആ നോയമ്പ് എടുക്കുന്നത് മദ്യവും മാംസവും ഒക്കെ ഉപേക്ഷിക്കും അങ്ങനെ ആ എട്ട് ദിവസം നോയമ്പ് എടുത്ത്പ്രാർത്ഥനയിലൂടെ തന്നെ അവർ മുന്നോട് പോയിട്ട് ആ എട്ടാമത്തെ ദിവസം ആ നോയമ്പ് വീടും അങ്ങനെ ആണ് ആ ചടങ്ങ് പിന്നെ മറ്റു പല ആചാരങ്ങളും ഉണ്ട്